ഇപ്പോൾ നമുക്ക് കൂടുതലായിട്ടും ഇഷ്ടമുള്ള മത്സ്യങ്ങളെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല് എനിക്കേറ്റവും ഇഷ്ടം കൂടുതലുള്ള മത്സ്യമെന്നു പറഞ്ഞു കഴിഞ്ഞാല് മത്തിയാണ് മത്സ്യം മത്തി നമുക്ക് നല്ല രീതിയിൽ വറുത്ത് അങ്ങനെയൊക്കെ കഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ മത്തിക്ക് അപ്പോൾ അതെന്നു പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇഷ്ടംപോലെയാണ് മത്തി നമുക്ക് കടലിൽ നിന്ന് കിട്ടുക പിന്നെയെന്നു പറഞ്ഞു കഴിഞ്ഞാല് അയലയുണ്ട് പിന്നെ ചെമ്പല്ലിയുണ്ട് അങ്ങനത്തെ മീനുകള് ഇപ്പോൾ ചെമ്പല്ലിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സ്രാവ് അങ്ങനത്തെ മീനുകൾ ഇഷ്ടംപോലെ നമുക്ക് ഉണ്ട് പിന്നെ ആൾക്കാര് കൂടുതലായിട്ടും ഇഷ്ടപ്പെടുന്നതെന്നു പറഞ്ഞുകഴിഞ്ഞാൽ മത്തി അയല ഇങ്ങനത്തെ മീനുകളാണ് കൂടുതലായിട്ടു ആൾക്കാര് വാങ്ങുക അപ്പോൾ അതിനാണ് കുറച്ചും കൂടി വിലയും കുറവ് ബാക്കിയുള്ള മീനുകളെന്നു പറഞ്ഞാൽ പുതിയാപ്പള അങ്ങനത്തെ മീനുകളൊക്കെയുണ്ട് പുതിയാപ്പളയെന്ന് പറഞ്ഞുകഴിഞ്ഞാല് നല്ല ഒരു നമ്മള് ചില നാട്ടിൽ പുതിയാപ്പളാന്ന് പറയും നമ്മുടെ നാട്ടിലൊക്കെ പുതിയാപ്പളയെന്നാണ് പറയുക ബാക്കിയുള്ള ഇപ്പോൾ സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ കിളിമീൻ അങ്ങനത്തെയൊക്കെയാണ് പറയുക അപ്പോൾ അത് എങ്ങനെയാണെന്ന് വച്ച് കഴിഞ്ഞാൽ ഒരു റോസ് കളറാണ് അതിന് അപ്പോൾ അത് ചിലവർ ഇഷ്ടപ്പെടും ചിലവരു ഇഷ്ടപ്പെടില്ല അപ്പോൾ ഇതൊക്കെയാണ് മെയ്നായിട്ടുള്ള മീനുകളെന്നൊക്കെ വേണമെങ്കിൽ പറയാം